എനിക്ക് ടി വി പരിപാടികളിൽ ഏറ്റവും ഇഷ്ടം തമാശ പരിപാടികളാണ് എന്താണെന്ന് വെച്ചാല് നമ്മള് നമ്മള് ടെൻഷനിൽ ഇരിക്കുകയാണ് എന്തെങ്കിലും ഒരു പ്രഷർ ആയിട്ട് ഇരിക്കുകയാണെങ്കില് ഈ തമാശ പരിപാടികള് കാണുമ്പോൾ ഒരു ഒരു റിലാക്സേഷനാണ് നമുക്ക് ഇങ്ങനെ നമ്മളുപോലും അറിയാണ്ട് നമ്മളിങ്ങനെ ചിരിച്ചിട്ട് നമ്മുടെ ടെൻഷനൊക്കെ മറക്കാൻ പറ്റുന്നൊരു പരിപാടിയാണത് അതുകൊണ്ടാണ് എനിക്ക് തമാശ പരിപാടികള് ഏറ്റവും ഇഷ്ടം